ടാപ്പ് വെള്ളം അതായത് നമുക്ക് കിണറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ കിണറ്റില് ചില എന്താ പറയുക ആ എല്ലാ സമയത്തും നമ്മുക്ക് കിണറിനെ ഇതാക്കാന് പറ്റില്ല പണ്ടെന്നു പറയുമ്പോൾ എല്ലാക്കാലത്തും ഇപ്പോൾ എത്ര വേനൽക്കാലമായാലും കിണറ്റില് വെള്ളോം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾക്ക് വേനൽച്ചാല് ചില സമയത്ത് വേനൽക്കാലത്ത് ചൂട് കൂടി ഒരുപാട് ചൂടായിട്ട് വെള്ളം വറ്റി പോവുന്ന അവസ്ഥയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മള് ടാപ്പു വെള്ളത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന കുറച്ച് എന്താ പറയുക കാര്യങ്ങള് വര് ഉ ണ്ടായിട്ടുണ്ട് ഇനി ചിലപ്പോൾ വയ വരുന്ന കാലങ്ങള് കാലഘട്ടങ്ങളില് അത് കൂടുതല് ഉണ്ടാവാൻ ചാന്സും ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും ദേശീയ എന്താ പറയാ പരമായിട്ടന്നെ അതിലൊരു മുന് കൈ എടുത്തിട്ട് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാനുള്ള രീതിയില് ടാപ്പും ഗഹ സംവിധാനങ്ങളും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലാണ്ടന്റെ സംസ്ഥാന സര്ക്കാരിന്റെ ടാപ്പും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ആ അതില് നമുക്കെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു സമയ ഇത്ണ്ട് എല്ലാ സമയത്തും വെള്ളം ഇണ്ടാവില്ല പക്ഷേ അയില് വരണ സമയത്ത് അത്യാവശ്യം നല്ല ഫോഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെള്ളോം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതില് അത്യാവശ്യം നല്ല രീതിയ്ക്ക് അതായത് ശുദ്ധമായ വെള്ളം തന്നെയാണ് നമുക്ക് കുടിക്കാനും അങ്ങനത്ത ആവശ്യങ്ങള്ക്കൊക്കെ ഉപയോഗിക്കാന് പറ്റുന്ന വെള്ളം തന്നെയാണ് വെരുന്നത് എല്ല് ഇതുവരെ ആരും അങ്ങനെ പൊതുവെ നമ്മള് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നും ഇല്ല നമ്മടെ പൊഴേലുള്ള വെള്ളം കൃത്യമായി ഫില്ട്ടറിംഗ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പൈപ്പിലൂടെ നമ്മടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ നമ്മുക്ക് അത് ചൂടാക്കിയിട്ട് എന്തായാലും കുടിക്കണേന് മുമ്പൊന്ന് ചൂടാക്കുന്നത് വളരെ നന്നായിരിക്കും അല്ലെങ്കി ഫില്ട്ടറില് നമ്മക്ക് ഉപയോഗിച്ച് കുടിക്കുന്ന ആയിരിക്കും കുറച്ചും കൂടെ ബെറ്ററ് കാരണം വെള്ളം നമ്മക്കെത്ര ഫില്ട്ടറ് ചെയ്താലും നമ്മടെ ഒരു സേഫ്റ്റി ഞ്ഞാല് ഇനി ഒരു ഇത് ചൂടാക്കി കുടിക്കുന്ന തന്നെയാണ് ഏറ്റവും ബെറ്ററ്ന്നാണ് തോന്നുന്നത്